ഞാൻ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നത് മൊബൈലിലും ചെയ്യാറുണ്ട് അതേപോലെ പി സി സിസ്റ്റത്തിലും ചെയ്യാറുണ്ട് ഞാൻ മൊബൈലിൽ അഡോബ് പ്ലേറ്റ് റൂം എന്ന് പറയുന്ന ഒരു ആപ് ഉപയോഗിച്ചാണ് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാറുള്ളത് അതേപോലെ പി സ് സി യിലേക്ക് വരുമ്പോൾ അതായത് കംപ്യൂട്ടറിലോട്ട് വരുമ്പോൾ ഞാൻ ഫോട്ടോ ഷോപ്പ് ഉപയോഗിച്ചാണ് ചെയ്യാറുള്ളത് രണ്ടും നല്ല ഫ്രണ്ട്ലി ആണ് കാരണം നമുക്ക് സുഖമായിട്ട് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഫോട്ടോസ് ഗ്രേഡ് ചെയ്യാനും കളർ മാനേജ് ചെയ്യാനൊക്കെ സഹായകമായ രണ്ടു ആപ്പുകളാണ് പ്ലേറ്ററൂം അതേപോലെ ഫോട്ടോഷോപ്പും സ്വാഭാവികമായിട്ടും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫികളിൽ നന്നായി എഡിറ്റ് ചെയ്യേണ്ട ആവശ്യകത ഒരുപാട് ഉണ്ട് കാരണം നന്നായി ഫോട്ടോ എഡിറ്റ് ചെയ്ത് നമ്മൾ നന്നായി ആൽബം ഡിസൈൻ ചെയ്താലാണ് നമുക്ക് വീണ്ടും ഇതേപോലെ വർക്കുകൾ വീണ്ടും വീണ്ടും കിട്ടുള്ളൂ അങ്ങനെ വർക്ക് കിട്ടിയാലാണ് നമ്മള് കേമറ എടുത്തതിനും നമ്മള് വർക്ക് ചെയ്തതിനൊക്കെ ക്യാഷ് നമുക്ക് ചെലവായ ക്യാഷ് മുതലാവുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മള് മാക്സിമം എഡിറ്റിങ് നന്നാക്കാൻ നോക്കും അങ്ങനെ നന്നാക്കുന്ന പടങ്ങൾ ഗ്രേഡ് ചെയ്ത് ഇപ്പൊൾ എല്ലാം ഗ്രൈഡിങ്ങിൻ്റെ ഗ്രൈഡിങ്ങിൻ്റെ കാലഘട്ടമാണ് ഇപ്പൊൾ അത്കൊണ്ട് എടുത്ത ഫോട്ടോസെല്ലാം നന്നായിട്ട് ഗ്രേഡ് ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയകളിലും അതേപോലെ ആളുകൾ കൂടുന്ന സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലും നമ്മള് പോസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന വഴി പല എൻക്വയ്റികളും വന്ന് നമുക്ക് വർക്ക് ബുക്ക് ആയി കിട്ടാറുണ്ട് അതിനാണ് ഫോട്ടോ എഡിറ്റ് ചെയ്യാറ്